ഹലോ ആ ആരാ വിളിക്കുന്നത് ആ എവിടുന്നാണ് വിളിക്കുന്നത് എത്ര സെൻറ് സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നത് ഏക്കാറാണോ അതൊ സെൻറ്റോ ഇത് എന്താവശ്യത്തിനാ ആ വീട് ആ ഏലകൃഷി ആ ആ നമ്മുടെ ഉണ്ട് ഉണ്ട് മഹാദേവ ക്ഷേത്രം അതിനടുത്ത് ആയിട്ട് അവിടെ അവിടെ കുറേ പ്ലോട്ട് കിടപ്പുണ്ട് അപ്പം നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ് വരുന്നത് നമുക്ക് എത്ര വരെ പിടിക്കാൻ പറ്റും

അതെ ഈ ക്ഷേത്രത്തിനടുത്ത് അത് ടൗണിൽ തന്നെ ആയതുകൊണ്ടെ അതൊരു അവിടെ മൂന്നൊക്കെയാ ചോദിക്കുന്നത് ആ എല്ലാം ഉണ്ട് കുടിവെള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റകത്തൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ആ പിന്നെ നമ്മൾ ടൗണിൻ്റെ തൊട്ടടുത്തല്ലേ കിടക്കുന്നതെ അപ്പം അതിൻ്റെതായ ഒരു ഫലം മൂന്ന് ലക്ഷം രൂപ മുടക്കിയാലും അതിൻറകത്ത്

അല്ലന്ന് അല്ല ഇത് അപ്പോൾ ടൗണിൻ്റെ തന്നെ നടുക്ക് കിടക്കുന്നുണ്ട് അതിൻറാകത്ത് അത്രയും വലിയ വിഷയങ്ങൾ വരുന്നില്ല പിന്നെ അമ്പലം ഒത്തിരി ആൾക്കാർ ഇപ്പം വരുന്നുണ്ട് കുറേ ആൾക്കാർ ഇപ്പോഴും ചോദിച്ച് വരുന്നുണ്ട് അധികം പ്ലോട്ട് ഇനിം കിടപ്പും ഇല്ല ഇതിനകത്ത് ഉണ്ടായിരുന്നെലൊരു ആ രണ്ടണ്ണം മൊത്തം ഇത് രണ്ട് ഏക്കറുണ്ട് ഈ രണ്ട് ഏക്കറിനവർ ആ പത്ത് പതിനഞ്ച് തിരിച്ചാ തിരിച്ചാ പത്തും പതിനഞ്ചും സെന്റായിട്ട് തിരിച്ച് ഇട്ടേക്കുവാ അവർ ആ മൊത്തിലതിന്റകത്ത് ഒരു കിണറുണ്ട് എല്ലാവർക്കുംകൂടെ വെള്ളം എടുക്കാനുള്ള സൗകര്യം ഉണ്ട് കുഴൽകിണറല്ല അല്ലാതെതന്നെ കിണറുണ്ട് അതിൻ്റെ അതിൻ്റെ ആവശ്യം ഇല്ല കാരണം ഇതിൻറകത്ത് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് ആ ഉണ്ടുണ്ടുണ്ട് ഇല്ല അത്രയും ഇഷ്ട്ടംപോലെ വെള്ളം ഉണ്ട് പിന്നെ കൂടാതെ നമ്മുടെ ഈ സർക്കാരിൻ്റെ മറ്റെ പൈപ്പ് കണക്ഷൻ ഉണ്ടല്ലോ ജലനിധി അത് എല്ലായിടത്തും എടുത്തിട്ടുണ്ട് അതിനുള്ള എടുത്ത് ഇട്ടിട്ടില്ല അതിനുള്ള സംവിധാനം അവിടെ ചെയ്ത് തരും കാരണം വീടും എല്ലാം വന്നാലല്ലേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ വെള്ളത്തിന്റെ ഒന്നും പ്രശ്നം ഇല്ല പിന്നെ നമുക്ക് സ്കൂള് കോളേജ് ആശുപത്രി എല്ലാം തൊട്ടടുത്ത് ഉണ്ട് അങ്ങനെയുള്ള ഇപ്പം പള്ളിയിൽ പോകേണ്ടവർക്ക് പള്ളിയിൽ പോകാനും അമ്പലത്തിൽ പോവാനും എല്ലാം അടുത്തടുത്തായതുകൊണ്ട് എളുപ്പമുണ്ട് നിങ്ങൾക്ക് എടുത്താൽ ബെറ്റർ ആയിരിക്കും ഇനിയിപ്പം എടുത്ത് കഴിഞ്ഞാൽപോലും നല്ല വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാം വേണമെങ്കിൽ മ് ആ ആ പക്ഷെ അവിടെ അതല്ല അത് പിന്നെ പറഞ്ഞപ്പോഴാണ് ഓർത്തത് എന്താണെന്ന് വച്ചാൽ അവിടെ പോരാതെ ഒരു താഴെയായിട്ട് ഒരു രണ്ട് രണ്ടര സെന്റ് സ്ഥലം വേറെയും കിടപ്പുണ്ട് അതായത് വെള്ളത്തിന് വേണ്ടിയിട്ട് ഉള്ളത് നമ്മുടെ ആ വയലിൻ്റെ അടുത്തായിട്ട് പിന്നെ വെള്ളമാണ് നോക്കുന്നതെങ്കിൽ മൈനായിട്ട് നിങ്ങൾ അതാ പ്രശ്നം നോക്കുന്നതെങ്കിൽ അങ്ങനെ പ്രശ്നൊന്നും ഇല്ല ആ അത് പോരാതെ പട്ടയം ഉണ്ട് പട്ടയം ഉണ്ട് ആ പട്ടയം ഒക്കെയുണ്ട് ആ പിന്നെ താഴെ മറ്റെ ആ ഓ മറ്റേ ആ പിള്ള ബെന്നിയുടെ സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൻറ് സ്ഥലവുംകൂടി കൂടുതൽ ഒപ്പിച്ചെടുക്കാം വേണമെങ്കിൽ വെള്ളത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ കിട്ടും അത് കിട്ടും ആ കിട്ടും ഇല്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് അതെല്ലാം കൂടി ഇതിൽ റെഡിയാക്കി തരാം കാരണം പുള്ളിയുടെയും കൂടെ പരിപാടിയാണ് ഇത് അപ്പം നിങ്ങൾക്ക് പക്ഷെ അതാരോടും കൂട്ടത്തിൽ അതുകൂടെ നമ്മളങ് നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി മാത്രമേ ആ കിണറിൻ്റെ ഒരു സൗകര്യം അത്രയും ആ ഒരു സെൻറുകൂടെ തരാം അല്ല അതിന് മിനിമം പതിനഞ്ച് സെൻറ് എടുക്കണം കേട്ടോ അപ്പം പതിനെഞ്ചിൻ്റെ പ്ലോട്ട് എടുത്താലേ അത് നടക്കുള്ളൂ ആ എത്രയാ നിങ്ങൾ ബഡ്ജറ്റ് എത്രയാണെന്നാ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നോ രണ്ട് ആ ഇത് ആ ഒരു ആ ഒരു കാര്യം ചെയ്യാം എന്നാ എന്നാ നിങ്ങൾക്ക് സമയം ഉള്ളത് എപ്പളാണ് ആ ഓ ശരി ആ എന്നാൽ ഒരു കാര്യം ചെയ്യ് തിങ്കളാഴ്ച എനിക്ക് വേറൊരു കോള് കൂടെ വരുന്നുണ്ട് അന്നേരം നമുക്ക് കാണാം ഓക്കെ ആയിക്കോട്ടെ ശരി ശരി ഓക്കെ